അമ്മേ എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്തതിൻ്റെ ഒരു പ്രൊസസ്സായി എന്നു പറഞ്ഞിട്ടൊരു എസ് എം എസ് എനിക്ക് കിട്ടിയിരുന്നു അപ്പം അത് പൂർത്തി ആയോയെന്ന് എനിക്കറിയില്ല അത് എങ്ങനെയാണ് അറിയുകയെന്ന് അറിയില്ല എന്താ ചെയ്യുക ആണോ എന്തൊക്കെ ഓപ്ഷനാണ് അതിനുള്ളതെന്ന് അറിയില്ലല്ലോ പലതരത്തിലുള്ള ഓപ്ഷനുകളുണ്ടോ എൻ്റെ ആധാർ അപ്ഡേറ്റ് സംബന്ധിച്ച് ഒരു എസ്സ് എം എസ് ലഭിച്ചിട്ടുണ്ടെന്ന് ഉണ്ടായിരുന്നു അപ്പം സ്റ്റാറ്റസ് ഓൺലൈൻ ആണോയെന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു വ്യത്യസ്ത ഓപ്ഷൻ പരിഗണിക്കുന്നതിനെക്കുറിച്ചും അമ്മയുടെ അഭിപ്രായം എന്താ എനിക്കറിയില്ല അത് നോക്കാൻ ആണോ ഓക്കെ